നല്ല വൈദ്യ സഹായം ലഭിക്കുന്നതിന് ദാരിദ്ര്യം ഒര് തടസ്സമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒര് തരത്തിൽ അത് ഭയങ്കര തടസ്സമാണ് എന്നാൽ ആ കാരണം ഒരുപാട് സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ലഭിക്കാൻ ഇപ്പോൾ സാധ്യമല്ല അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇപ്പത്തെ സർക്കാറിൻ്റെ ഒരുപാട് സഹായങ്ങൾ ലഭ്യമാവുന്നുണ്ട് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ആ എല്ലാ വിധത്തിലും ഉള്ള ചികിത്സ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള വൈദ്യ സഹായവും ലഭിക്കാൻ എല്ലാവരേയും പ്രാപ്തരാക്കുന്ന ഒരുപാട് പദ്ധതികൾ സർക്കാരിപ്പോൾ കൊണ്ട് വരുന്നുണ്ട് മാത്രമല്ലാണ്ട് തന്നെ ആ സർക്കാര് കൂടുതൽ പ്ര പ്രവർത്തികൾ ഇതിൽ കൂടുതൽ പദ്ധതികൾ ആൾക്കാരിലേക്ക് ആളുകളിലേക്ക് കൊണ്ട് വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് കൂടുതൽ സഹായം ലഭ്യമാവും മാത്രമല്ലാണ്ട് തന്നെ എല്ലാവർക്കും പബ്ലിക് വൈദ്യ ശാലകളും പബ്ലിക്കായിട്ട് ഉള്ള വൈദ്യ ശാലകളും ആ പുതുതായിട്ടൊക്കെ നിർമ്മിച്ച് കൊടുക്കയാണെങ്കില് ആ നല്ല ഡോക്ടർമാരെയൊക്കെ നമുക്ക് നല്ല കൈക്കൂലി മേടിക്കാത്തതും എല്ലാ കൂട്ടങ്ങളും അറിയുന്നതുമായ നല്ല ഡോക്ടർമാരെയൊക്കെ നിയമിക്കുകയാണെങ്കിൽ തന്നെ പകുതി ആൾക്കാർക്ക് നല്ല നല്ല നല്ല ചികിത്സകൾ ലഭിക്കും അതുപോലെ തന്നെ ഒരുപാട് സ്കീമുകള് പാവപ്പെട്ടവർക്കും ഒക്കെ ലഭിക്കാൻ സാധിക്കും പാവപ്പെട്ടവർക്കൊക്കെ നീക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് ചികിത്സ സഹായം ലഭിച്ചിട്ട് ഒരുപാട് പേര് അസുഖത്തിൽ നിന്ന് വിമുക്തരാവും വിമുക്തരാവും